ജലം വനങ്ങൾ ധാതുക്കൾ മലിനീകരണം ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ആർക്കും തന്നെ ഇല്ലാതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവാത്ത കാര്യങ്ങളാണിതെല്ലാം ജലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ കേരളത്തിൽ വയനാട്ടുകാർക്ക് അത്ര ബുദ്ധിമുട്ടില്ല എന്നാലും മറ്റുജില്ലകളെ സംബന്ധിച്ച് നോക്കിയാൽ ബുദ്ധിമുട്ട് തന്നെയാണ് ജലമില്ലായ്മ എന്ന് പറയുന്നതും ജലം കൂടിയാലുള്ള പ്രശ്നങ്ങളും നമുക്കറിയാം ജലമില്ലായ്മ പല സ്ഥലങ്ങളെയാണ് ബാധിക്കുന്നത് ജില്ലയിലെ ഉടനീളം അത് ബാധിക്കുന്നില്ല പല സ്ഥലങ്ങളിലും പല വീടുകളിലുമായി അത് ബാധിക്കുന്നുണ്ട് വനങ്ങൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫോറസ്റ്റേഷൻ കൂടുതലായി നടുന്നു വരുന്ന ഒരു സ്റ്റെയ്റ്റാണ് കേരളം കേരളത്തിലെ എല്ലാവരും തന്നെ കേരളത്തിൽ ഡിഫോറസ്റ്റേഷൻ നടത്തുന്നുണ്ട് അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു നിയമം ഇതുവരെ വന്നിട്ടില്ല എന്നൊരു കാര്യമാണ് ശ്രദ്ധരൂപണമായിട്ടുള്ളത് ഡിഫോറസ്റ്റേഷൻ അഥവാ മരം വെട്ടിമാറ്റി അവിടെ ബിൽഡിംഗുകൾ കെട്ടുന്നതും ഇലക്ട്രിസിറ്റി മാറ്റി അവിടെ വേറെ പല കാരണങ്ങളാൽ വേറെ പല സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതെല്ലാം വളരെ നല്ല കാര്യമെന്നായാലും നമ്മൾക്ക് അല്ലെങ്കിൽ മും വരുന്ന ജനറേഷൻസിന് വളരെ അധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഡിഫോറസ്റ്റേഷൻ ഒരിക്കലും നമുക്ക് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മളെതിർക്കുന്ന ഒരു കാര്യമാണ് മരങ്ങളെല്ലാം ആവശ്യത്തിന് നമ്മൾ വെട്ടി വിൽക്കുക തന്നെ വേണം അത് നമുക്ക് ബാധിക്കുമെങ്കിൽ മാത്രം എന്നാൽ നമുക്ക് ഒരു അതായത് നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത വനങ്ങളെ വെട്ടി മാറ്റുമ്പോൾ അത് നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടാവും എന്ന കാര്യം ആരും തന്നെ ചിന്തിക്കുന്നില്ല മലിനീകരണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വയനാട് ജില്ലയിലത് ബാക്കിയുള്ള സ്റ്റേറ്റുകളെയും അതുപോലെത്തന്നെ ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സിനേയും വച്ച് നോക്കുമ്പോൾ കൂടുതൽ തന്നെയാണ് വേറൊരു ജില്ലയിൽ പോയിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കർമ്മങ്ങളും അത് റൊട്ടീൻസും ഉണ്ടാവുന്നതാണ് എന്ന വയനാട്ടുകാർക്ക് വളരേ അധികം മലിനീകരണം കൂടുന്ന എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ ടു തൗസൻറ് ട്വൻറി ത്രീയിൽ കൂടുതൽ നിയമങ്ങൾ വരികയും ഇതിനെ മലിനീകരണത്തെ എതിർക്കുന്ന കർമ്മങ്ങൾ വരികയും അതുപോലെ പല വർക്കേഴ്സ് വന്ന് വീടുകളിലെ മലിനീകരണം ചെക്കു ചെയ്യുകയും പെയ്ഡ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനാൽത്തന്നെ വീടുകളിലെല്ലാം തന്നെ ഇപ്പോൾ മലിനീകരണത്തെ വളരേ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത് വീട്ടിൽ നോക്കിയാൽ കഴിഞ്ഞാലും ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞാലും ഓരോ മാൾസ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഒരു നിലയ്ക്ക് വളരേ അധികം മലിനീകരണം കുറഞ്ഞു വന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്